ആ ഹലോ ഇത് കുളുകുന്ന് ഗ്യാസെജൻസി അല്ലയോ സാർ എൻ്റെ പേര് ടോണി എന്നാണ് സ്ഥലം കൈനകിരി പത്തിപ്പാലത്തിന്നാണ് വിളിക്കുന്നത് എൻ്റെ വീട്ടിലാക്ച്വൽ ഒരു ഫങ്ക്ഷൻ നടക്കുകാണപ്പോള് എൻ്റെ വീട്ടിൽ ഗ്യാസ് ജൻസി എടുത്തു കൊണ്ടു പോയി അപ്പോള് എനിക്ക് എമർജൻസിയാട്ടൊരു ഗ്യാസ്സ് വേണമായിരുന്നു നിങ്ങളിവിടെ കൊണ്ടു തരുവോ അതോ ഞാനവിടെ വരണോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ പേര് ടോണി ആൻ്റണി സ്ഥലം കൈനഗിരി പത്തിപ്പാലത്തിൻ്റെ അടുത്താണ് അഡ്രസ്സ് അങ്ങാടിശേരി ഹൗസ് കൈനഗിരി പി ഓ ആലപ്പുഴ ആറെ എട്ടേ എട്ടേ അഞ്ചേ പൂജ്യം ഒന്ന് പുളിങ്കുന്ന് ഗ്യാസെജെൻസീന്നാണ് ഞാൻ ഗ്യാസെടുക്കാറ് ഇപ്പൊരു ഫങ്ക്ഷൻ വന്നെമർജെൻസിയോടെ നമ്മള്ക്ക് ഗ്യാസ് തീർന്നു പോയതുകൊണ്ടാണിപ്പോള് വിളിക്കുന്നത് ഞാനിപ്പോള് അവിടെ വന്ന് കഴിഞ്ഞാലെനിക്ക് കിട്ടുവോ അതോ നിങ്ങളെനിക്കിങ്ങോട്ട് ഡെലിവർ ചെയ്ത് തരുവോ ക്യാഷ് കുഴപ്പമില്ല കാരണം എമർജൻസി ഒരു സിറ്റുവേഷനിൽ നില്ക്കുകയാണ് എന്താ ചെയ്യാൻ പറ്റുവാന്ന് വെച്ചാല് നിങ്ങളൊന്ന് പറയുക ഒരു ഫാമിലി ഫങ്ഷനിക്കയാ നമുക്കടുത്തൂന്ന് മേടിക്കാമെന്നു വെച്ചുകഴിഞ്ഞാലൊരു വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേ നമ്മളെല്ലാടത്തും നോക്കി നമ്മളെവിടെയെങ്ങാനും സ്റ്റോക്കെയ്ത് വയ്ക്കാൻ വേണ്ടി ഇരുന്നതാരുന്നു എന്നാല് നമുക്ക് ഒരു കാര്യത്തിലേക്ക് നടക്ക പറ്റിയില്ല വേറെ കാര്യങ്ങളെക്കുറിച്ച് തിരക്കായി പോയോണ്ടാണ് എമാർജൻസിയായി പോയി അപ്പോള് എന്താ ചെയ്യാൻ പറ്റുകാന്ന് പറഞ്ഞു തന്നിരുന്നേൽ വളരെ ഉപകാരമായിരുന്നു അപ്പോള് കാര്യങ്ങള് കുറച്ച് എളുപ്പത്തില് പോകാനാണ് മാക്സിമം വൺ അവറിനുള്ളില് എനിക്കൊരു ആൻസര് കിട്ടുവായിരുന്നേല് നല്ലതാരുന്നു എന്താ ചെയ്യേണ്ടത്